സ്റ്റാമ്പ്കൾ നാണയങ്ങൾ കല്ലുകൾ എന്നിവ നമ്മൾ ശേഖരിക്കുന്നൊണ്ട് പക്ഷേ ഇതിനെ പറ്റി വലിയ ഗവേഷണം ഒന്നും നമ്മൾ നടത്തിയിട്ടില്ല വലിയ ഭാരണമുമോ അങ്ങനൊന്നും നടത്തുന്നില്ല എന്നാൽ നമ്മുടെ അറിവിനും നമ്മുടെ ബുദ്ധിക്കും അനുസരിച്ച് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതെന്നെ ഉള്ളു അപ്പം നാണയം ശേഖരിക്കുന്നത് കൊണ്ട് അതായത് അത് ഇപ്പോൾ ഇപ്പോഴത്തെ തലമുറയ്ക്കും വരും തലമുറയ്ക്കും ഈ നാണയത്തെപ്പറ്റി ഒരു അറിവ് അവർക്ക് കൊടുക്കാൻ എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാണയം എന്ന് അതെന്ന് പറയുമ്പോൾ പണ്ട് പണ്ടത്തെക്കാലത്ത് ആദ്യം ചക്രം എന്നാണ് പറഞ്ഞോണ്ടിരുന്നത് അരച്ചക്രം മുക്കാൽ ചക്രം അങ്ങനെ ഒക്കെ ആയിരുന്നു അതും ആ ആ കാലഘട്ടം പോയി കഴിഞ്ഞപ്പം അത് അണാ ഏക്ക് മാറി കാലണ അര ആണ മുക്കാൽ അങ്ങനെ നാണയം ആ രീതീലേയ്ക്ക് മാറി അതിന് ശേഷമാണ് പൈസ അതായത് ഒരു പൈസ രണ്ട് പൈസ അഞ്ച് പൈസ പത്ത് പൈസ അൻപത് പൈസ അങ്ങനെ നാണയങ്ങളാണ് രീതീലേക്ക് വന്നു ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അൻപത് പൈസ പോലും ആരും മാറി എടുക്കാനോ ഉപയോഗിക്കാനോ പോലും തയ്യാറാകുന്നില്ല അപ്പോൾ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ഒക്കെ ഈ ഇതൊക്കെ വരും തലമുറക്ക് ആണെങ്കിൽ പോലും ഇതിനെപ്പറ്റി ഒരു അറിവ് കൊടുക്കുവാൻ വേണ്ടീട്ടാണ് ഈ നാണയങ്ങൾ നമ്മൾ ഇങ്ങനെ ശേഖരിക്കുന്നത് ഇപ്പോഴത്തെ തലമുറക്ക് പോലും പൈസ എന്താന്നറിയാം പക്ഷേ ചക്രം അണ ഇങ്ങനെ ഉള്ള സംഭവങ്ങൾ എന്താണ് അങ്ങനെ അങ്ങനെയാണ് പണ്ട് ഉപയോഗിച്ചോണ്ടിരുന്നത് എന്ന് പോലും ഈ തലമുറ ഉള്ളവർക്ക് പോലും അറിയത്തില്ല അപ്പം വരും തലമുറ എന്ന് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും അവർക്ക് അത്രേം പോലും ഇതിനെ പറ്റിയൊരു ഗ്രാഹ്യം ഇല്ല അതുകൊണ്ടാണ് ഈ നാണയം ശേഖരിക്കുന്നത് സ്റ്റാമ്പിൻ്റെ കാര്യമാണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ സ്റ്റാമ്പങ്ങനെ ഉപയോഗിക്കാറില്ല എല്ലാവരും എഴുത്ത് എഴുത്തുകൾ അയക്കുന്നില്ല സ്റ്റാമ്പൊട്ടിച്ചൊള്ള ഒരു സംഭവം ചെയ്യുന്നില്ല എല്ലാം ഫോൺ വഴി അതുപോലെ ഉള്ള നൂതന രീതിയിലൂടെയാണ് മെസ്സേജുകൾ അയക്കുക അല്ലെങ്കിൽ കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്യുന്നത് അപ്പം സ്റ്റാമ്പെന്ന് പറയുന്നത് പണ്ട് നമ്മൾ ഉപയോഗിച്ചോണ്ടിരുന്നത് സ്റ്റാമ്പുകൾ പല രീതിയിൽ ഉള്ള പല രീതിയിലും പല പൈസ മൂല്യം ഉള്ള സ്റ്റാമ്പുകൾ ഉണ്ടായിരുന്നു ഒരു എഴുത്തയക്കണം എങ്കിൽ പോലും സ്റ്റാമ്പ് ഒട്ടിച്ചാൽ മാത്രമേ മറ്റ് അത് അയക്കാൻ പറ്റുവൊള്ളാരുന്നു മറ്റുള്ള മറ്റ് കാര്യങ്ങൾക്ക് ആണെങ്കിൽ പോലും രെജിസ്റ്റേഡയക്കാൻ എന്ത് കാര്യത്തിന് ആണെങ്കിലും സ്റ്റാമ്പ് വേണമായിരുന്നു ഇന്നത്തെ സ്റ്റാമ്പെന്താന്ന് പോലും അറിയാൻ മേലാത്ത കുട്ടികളാണ് ഇപ്പോൾ ഉള്ളത് അത് സ്റ്റാമ്പെന്ന് പറഞ്ഞാൽ എന്താണ് എന്നിങ്ങോട്ട് ചോദിക്കും അപ്പോൾ അങ്ങനെ ഒക്കെ ഉള്ളത് കൊണ്ട് അവർക്കും കൂടെ പ്രയോജനകരമായ രീതിയിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടീട്ടാണ് സ്റ്റാമ്പിൻ്റെ ശേഖരണം നടത്തുന്നത് കല്ലുകളെന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇൻട്രസ്റ്റിങ്ങായിട്ട് ഉള്ള അത് തോന്നുന്ന ഒരു ആകർഷകമായിട്ടും കാഴ്ചക്ക് കൗതുകകരവും അങ്ങനെ ഉള്ള സംഭവം കല്ല് അതെക്കെയാണ് നമ്മൾ ശേഖരിക്കുന്നത് വാ ഒരുപാട് വലിയ ആ കല്ല് അങ്ങനൊന്നും അല്ല നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമുക്ക് അത് സൂക്ഷിക്കാൻ പ സാ പറ്റിയ സാഹചര്യത്തിൽ സ്ഥലങ്ങളിൽ വെക്കാൻ പറ്റിയ ചെറിയ ചെറിയ കല്ല് കല്ല്കൾ ഭംഗിയുള്ളതും പല കളറുകൾ ഉള്ളതും അങ്ങനെ ഉള്ള കല്ല്കൾ ആണ് നമ്മൾ സൂക്ഷിക്കുന്നത് അപ്പം ഇതിനെപ്പറ്റി ഒരു അങ്ങനൊരു ഗവേഷണം ഒക്കെ ഒന്നും നടത്താൻ പറ്റിയൊരു സാഹചര്യം ഒന്നുമില്ല പഠനമോ ഒന്നും നട നമ്മുടെ ഐഡിയായിക്ക് എന്നൊള്ള ഒരു രീതിയിൽ നമ്മൾ ഇത് ചെയ്യുന്നു മറ്റ് ഇനി വരുന്ന തലമുറക്ക് വേണ്ടീട്ട് നമ്മൾ ഈ ചെയ്ത കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടീട്ടും പണ്ട് ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഇല്ലാത്തതുമായ കാര്യങ്ങൾ അവരെ മനസ്സിലാക്കുന്നതിനും വേണ്ടീട്ടാണ് നമ്മൾ ഈ സംഭവങ്ങൾ ഒക്കെ ചെയ്യുന്നത്